ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും നമ്മളെ ഹൃദയസ്പർശിയായ ആയ പുസ്തകം ബൈബിളാണ് ബൈബിൾ ബൈബിളിൽ ഏറ്റവും ഉദ്ധരണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നെ അനുഗമിക്കുന്നവർ അനാഥനായിട്ട് നടക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാചകമാണ് കർത്താവിൻ്റെ വചനമാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത് അതായത് ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് നേടിയാലും നമുക്കത് സർ അർഥവത്താകുന്നില്ല അപ്പോൾ എന്ത് ലോകത്തിൽ എല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നന്മകളും എല്ലാ ഗുണങ്ങളും എല്ലാ പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സ്വർഗ്ഗത്തിലെത്തണമെങ്കിൽ ദൈവത്തെ ആ ആശ്രയിച്ചെ പറ്റുള്ളൂ അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന ഒരുത്തനും സ്വർഗ്ഗ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല കർത്താവ് നമ്മളോട് ഉദ്ധരണിയായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നെ അനുനിന്ദിക്കുന്നത് അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ ദൈവത്തെ അറിയാൻ നമ്മൾ ശ്രമിക്കുക ദൈവം എത്രയും നല്ലവനാണെന്ന് നമ്മൾ മനസ്സ് അറിഞ്ഞ് അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നീ ഏത് തെറ്റ് ചെയ്താലും നിനക്ക് നിന്നെ ശിക്ഷിക്കത്തില്ല അപ്പോൾ നീ അനുധഭിച്ച് എൻ്റെ തിരികെ എൻ്റെ അരികെ പക്കലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ നമ്മൾ സ്നേഹിച്ചു സ്നേഹിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മളെ മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കുക സൃഷ്ടാവിനോട് നന്ദിയുള്ളവനായിരിക്കുക എപ്പോൾ പ്രഭാതം മുതൽ പ്രദോഷംവരെ നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ആസ്വദയ്ക്ക് അർഹൻ ഏത് ഏകനായ ദൈവം മാത്രമേയുള്ളെന്ന് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പിൻതലമുറകളിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന തലമുറയും പിൻതലമുറകളും നമുക്ക് അത് മനസ്സിലാക്കികൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് പ്രത്യേകിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഭാഗ്യമുള്ള വാക്ക്യമെല്ലാം നമ്മളുടെ പ്രാർത്ഥനകളിലും എല്ലാം ഈ ബൈബിൾ വാക്ക്യവും നമ്മൾക്ക് അർത്ഥവത്താകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ പകർന്നുകൊടുക്കാൻ കടപ്പെട്ടവരുമാണ് അടുത്ത തലമുറ നന്നായിവരണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മുടെ ഈ ഉദ്ധരണികൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്നും എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു സമൂഹമായും ഒരു ജനതയായും ഒരു ജനതയായും ഇസ്രായേൽ ജനത്തെപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നതിൽ ആകണം ആണ് എങ്കിലും അതിനുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പിതാവും പുത്രനും ആയ ദൈവത്തെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ലോകാവസാനം സകലമാന ഗണങ്ങളോടും കൂടി നമുക്ക് സ്വർഗ്ഗത്തെ ആ ദൈവത്തെ ആശ്രയിക്കാൻ സാധിക്കയുള്ളു